സത്യം പറഞ്ഞാൽ വരയ്ക്കാൻ തുടങ്ങിയത് പറയുമ്പോൾ ആരും എന്നോട് പറഞ്ഞിട്ടില്ല നീ ഇങ്ങനെ വരയ്ക്ക് അങ്ങനെ വരയ്ക്ക് അങ്ങനെ ക്ലാസ്സിൽ കൊണ്ടു പോയിട്ടില്ല ഡ്രോയിങ് ക്ലാസ്സിൽ അങ്ങനെ അങ്ങനെയൊന്നും കൊണ്ടു പോയിട്ടില്ല ഞാൻ ഇങ്ങനെ എൻ്റെ അച്ഛമ്മ ഉണ്ട് അച്ഛമ്മേൻ്റെ ഒരു ഒരു ടാബ്ലറ്റ് ഒക്കെ മരുന്നുകളൊക്കെ എഴുതി വെക്കുന്ന ഒരു ബുക്കുണ്ട് അപ്പോൾ ആ ബുക്ക് ബുക്കിൻ്റെ ഏറ്റവും അവസാനത്തെ കുറച്ച് പേജ് ഉണ്ടാകുമല്ലോ കുറച്ച് പേജിൽ ഇങ്ങനെ എഴുതി വെക്കും ഏറ്റവും അവസാനത്തെ പേജിൽ അതൊരു വരയിടാത്ത ബുക്കായിരുന്നു ചെറിയ നോട്ട് ബുക്ക് അപ്പോൾ ഏറ്റവും അവസാനത്തെ പേജില് ഗ്യാപ്പ് ഉണ്ടാകും ആ ഗ്യാപ്പില് ഞാൻ ഇങ്ങനെ ഓരോ ചിത്രങ്ങള് പണ്ട് ഒരു രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അത്യാവശ്യം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഇമാജിൻ ചെയ്ത് വരയ്ക്കാനുള്ള കഴിവില്ല പക്ഷെ ഞാൻ എന്നാലും അത്യാവശ്യം നോക്കി പക്കാ ആയിട്ട് വരയ്ക്കുമായിരുന്നു ആദ്യമേ തന്നെ അപ്പോൾ അങ്ങനെ വരച്ച് വരച്ച് എനിക്ക് ഭയങ്കര വരയ ഈ വരയോട് എനിക്ക് ഭയങ്കര ക്രയിസായി പെൻസിൽ ഡ്രോയിങ് ആണെങ്കിലും ഞാൻ സ്കുളിലൊക്കെ ആണെങ്കിലും എന്ത് കോമ്പറ്റിഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു മടിയില്ലാതെ തന്നെ പങ്കെടുക്കും എനിക്ക് തോറ്റാലും വിഷയമല്ല ജയിച്ചാലും വിഷയമല്ല എനിക്ക് ജസ്റ്റ് പങ്കെടുക്കുക എനിക്ക് ജസ്റ്റ് ആ ഒരു ചിത്രം വരയ്ക്കണം ആ ഒരു ഇതായിരുന്നു എൻ്റെ ഒരു എൻ്റെ ഒരു ഹോബി ആയിരുന്നു അത് പണ്ട് തന്നെ ഞാനത് എപ്പോഴും വരച്ച് വരച്ച് തുടങ്ങി എനിക്കത് ഭയങ്കര വര ഇല്ലാതെ എനിക്ക് പറ്റാതെയായി പിന്നെ ഒരു പ്ലസ് ടു വരെയൊക്കെ ഞാൻ നന്നായി വരക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിന് എൻ്റെ ഒരു ബസ്ഡ് ഫ്രണ്ട് ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ അപ്പോൾ അവൻ്റെ അവനൊരു പ്രേമം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ കുറേ പിന്നാലെ നടന്ന് നടന്ന് നടന്ന് ഒന്നും അത് സെറ്റാകണില്ല ഞാൻ ജസ്റ്റ് ഒരു പേപ്പറില് ഒരു ചെറുതായിട്ട് ഒന്ന് ഒരു ചെറുതായിട്ട് ഒന്ന് ഒരു പിക്ചർ വരച്ച് ചെക്കൻ്റെ കൈയിൽ കൊടുത്ത് അവൻ അവളുടെ അടുത്ത് കൊടുത്തതും അത് എങ്ങനെയോ സെറ്റായി ചിലപ്പോൾ ആ വരയുടെ എഫ്ഫക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ തള്ളിയതല്ല ഒറിജിനലായിട്ട് നടന്നതാണ് അവൻ്റെ പേര് ശ്രീജിത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ആ അത് സെറ്റായത് സെറ്റായപ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് സെറ്റായപ്പോൾ എനിക്ക് എന്തോ എനിക്ക് ഇത്രയും കഴിവുണ്ടോ എന്ന് തന്നെ ഞാൻ വിചാരിച്ചുപോയി പിന്നെ ഭയങ്കര ഭയങ്കര ഒരു ഒരു സ്പാർക് അടിച്ച മോമെന്റായിരുന്നു അത് അപ്പോൾ പിന്നെ ഞാൻ എല്ലാ കോമ്പറ്റീഷനിലും പങ്കെടുക്കും ഇപ്പോൾ വർക്ക് എക്സ്പെരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനം പോലും ഈ ഒരു വരേൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം എല്ലാത്തിലും ചെയ്യുമായിരുന്നു വരെയൊക്കെ വരയ്ക്കുമായിരുന്നു വരയോടുള്ള ക്രയിസ് എനിക്ക് ഇപ്പോഴും ഉണ്ട് എൻ്റെ ഒരു ഡ്രീമിൽ ഒന്ന് എൻ്റെ ഡ്രീം ഡ്രീം തന്നെ എൻ്റെ ഒരു ഈ ഒരു വരയുടെ ഒരു പാർട്ട് തന്നെയുണ്ട് ഒരു ഡ്രോയിങ്ങിൻ്റെ ഒരു പാർട്ടാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഞാൻ അത് എന്തായാലും അതിലോട്ട് എത്തുക തന്നെ ചെയ്യും എത്തട്ടെ പിന്നെ ഈ ബി ഹയർ സ്റ്റഡീസ് ആയതിന് ശേഷം എനിക്ക് വരയ്ക്കാനുള്ള ടൈം ഒന്നും കിട്ടുന്നില്ല അതിനുള്ള എഫേർട്ട് ഞാൻ ഇടുന്നില്ല അതിപ്പോൾ ചെറിയ ഒരു ടച്ചൊക്കെ വിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും എൻ്റെ ആ ഒരു ആ ഒരു സ്പാർക് എപ്പോഴും ഉണ്ടാകും ഞാൻ വരയ്ക്കുക തന്നെ ചെയ്യും ഇനിയും തുടരും ഇപ്പോൾ ഇതിൽ എനിക്ക് കലാകാരൻ എന്ന് പറയാൻ എനിക്കങ്ങനെ ആരുമില്ല എൻ ഐ മീൻ എനിക്ക് അങ്ങനെ ഇൻസ്പയറായിട്ട് ആരെയും തോന്നിട്ടില്ല എനിക്ക് അങ്ങനെ ആരെയും അറിയത്തുമില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഹോബിയാണ് അത് എൻ്റെ പാഷനാണ് അത് എൻ്റെ ഡ്രീമാണ് അത് അത്രേയുള്ളു അല്ലാതെ ഞാൻ ഇങ്ങനെ ഡീറ്റൈലായിട്ട് അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല അത്രേയുള്ളൂ